പത്രത്തിലെ എല്ലാ പേപ്പറുകളും ഞാൻ വായിക്കാറുണ്ട് ഏറെ പ്രത്യേകിച്ച് ഞാൻ വായിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസ മേഖലകളിൽ ചെറുതായിട്ടേ കാണത്തോളൂ പ്രധാന വാർത്തകളാണ് ഞാൻ നോക്കുന്നത് പിന്നെ സ്പോർട്സ് സ്പോർട്സ് പത്രത്തിൽ നല്ല വലിയ ഒരു ഫുൾ പേജായിട്ട് സ്പോർട്സിൻ്റെ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് അപ്പം അത് ഞാൻ നന്നായിട്ട് വായിക്കാറുണ്ട് പിന്നെ പത്രത്തിലെ ലേഖനങ്ങൾ നമ്മൾ പത്രത്തിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം പിന്നെ ഇൻറ്റർനെറ്റും മറ്റ് കാര്യങ്ങളും വന്നു എന്നാലും പത്രത്തിലൂടെ വായിക്കുന്നത് നമുക്ക് കുറച്ചു കൂടെ അറിവ് തരും തരും മറന്ന് പോകാതിരിക്കും നമ്മൾ വായിക്കമ്പോൾ അപ്പം സ്പോർട്സും പിന്നെ ബിസിനസ്സ് പേജും ഞാൻ നന്നായിട്ട് വായിക്കാറുണ്ട് എന്തൊക്കെയാണ് വാണിജ്യപരമായിട്ടും വ്യവസായപരമായിട്ടും എന്തൊക്കെയാണ് ഇന്നത്തേക്ക് ഉയർന്ന് നിൽക്കുന്നത് ഏത് ലെവ ഏത് രീതിയിലാണ് നമ്മുടെ ബിസിനസ്സ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പോകുന്ന നടക്കുന്നത് പിന്നെ സ്പോർട്സാണെങ്കിൽ പോലും എങ്ങനെ എത്രത്തോളം ആൾക്കാർ ഇതിൽ പങ്കാളികൾ ആകുന്നു പിന്നെ അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാം പത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ മരണ വാർത്ത ഞാൻ നോക്കാറുണ്ട് അറിയാവുന്നവർ ആണെങ്കിൽ ഇപ്പം നമ്മളോട് പറയാൻ പറ്റാത്തവരെ അപ്പം ചിലപ്പം എല്ലാവർക്കും പെട്ടന്ന് നമ്മളെ അറിയിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പത്രത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും അപ്പം അവരെ വിളിച്ച് നമുക്ക് ഒരു കണ്ടോളൻസ് പറയാനും അല്ലെങ്കിൽ അവിടെ ഒന്ന് പോകാനും ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പത്രത്തിലെ എല്ലാ ഏകദേശം ഞാൻ എല്ലാ ഏരിയകളും നന്നായിട്ട് വായിക്കും അപ്പം താല്പര്യം ഉണർത്തുന്ന ഏരിയാന്ന് സ്പോർട്സാണ് സ്പോർട്സാണ് കൂടുതലായിട്ടും നം ഞാൻ നോക്കുന്നത് അത് നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടുത്തുന്നാണ് പത്രത്തിലെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടത് ഞാൻ നന്നായിട്ട് വായിക്കാറുണ്ട്